ഇന്ന് ഒരുപാട് ഒരുപാട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് യുവാക്കൾക്ക് തന്നെ തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ നല്ലരീതിയിൽ പഠിച്ചിറങ്ങുകയാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അതുപോലെ ഡോക്ടർസിനാണെങ്കിലും ഒരുപോ ഒരുപാട് ഒരുപാട് കുട്ടികൾ തന്നെ പഠിച്ച് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഒരുപാടൊരു എം ബി എ കഴിഞ്ഞ ഒരുപാട് ആൾക്കാർക്കൊന്നും ജോലിയില്ലാതെ തന്നെ എൻ്റെ മുന്നിലൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെത്തന്നെ എഞ്ചിനീയർമാരും ഒരുപാട് എഞ്ചിനീയർമാരുണ്ട് ഇപ്പോൾ എഞ്ചിനീർ എൻജിനീയർമാരിപ്പോൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കൂടിക്കൂടി വരികയാണ് പക്ഷേ അവർക്കൊന്നും തൊഴിലില്ലായ്മ വ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ഇപ്പോൾ സർക്കാരെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർക്ക് തൊഴിലവസരങ്ങൾ കൂടുതലായിട്ട് നൽകണം അവർക്ക് ഇപ്പോൾ സർക്കാർ ഓഫീസിൽ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് തൊഴിലവസരങ്ങൾ കൂട്ടുക അവരുടെ ഒരു എന്താ പറയുകയെന്നുവെച്ചാൽ സർക്കാർ മുൻ മുൻ എല്ലാവരുംകൂടി ഒരു തീരുമാനമെടുത്ത് തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തൊ അതിനെക്കുറിച്ച് പഠിച്ച് എ ഏതൊക്കെ ആൾക്കാർക്കാണ് അല്ലെങ്കിൽ എന്തൊക്കെ കഴിവുള്ള ആൾക്കാർ ഏത് ബാ ഏത് ബാ വിഭാഗങ്ങൾക്കാണ് തൊഴിലില്ലായ്മ ഇൽ തൊഴിലില്ലായ്മ ഇല്ല തൊഴിലില്ലാത്തതായി വരുന്നത് അവിടെയൊക്കെ പഠിച്ച് അവർ അവർക്ക് തൊഴിലവസരങ്ങൾ നൽകണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇപ്പം ഒരുപാട് തൊഴിലുണ്ടിവിടെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇപ്പോൾ പട് പഠിക്കാത്തവർക്ക് തന്നെ ഒരുപാട് തൊഴിലുണ്ട് ഇപ്പോൾ പിന്നെ കൃഷിയിലാണെങ്കിലും അതുപോലെ പിന്നെ ബിസിനെസ്സിലാണെങ്കിലും അങ്ങനെ ഒരുപാടൊരുപാട് ഓരോ മേഖലയിലാണ് ഓരോരുത്തർ തൊഴിലവസരങ്ങൾ തേടി പോകുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും പിന്നെ ഗൾഫ് കൺട്രിസിലൊക്കെ ഒരുപാടാൾക്കാരു തൊഴിൽ തൊഴിലില്ലായ്മ ഇപ്പം നമ്മുടെ നാട്ടിൽ തൊഴിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവർ കടൽ കടന്ന് വേറൊരു രാജ്യങ്ങളിലേക്ക് പോയി തൊഴിൽ അ അവസരങ്ങൾ തേടിപോകേണ്ടതായിട്ട് വരുന്ന അതുകൊണ്ടുതന്നെ ഇവിടെ തന്നെ അവർക്ക് തൊഴിലവസരങ്ങൾ നൽകണം എന്ന് എൻ്റെയൊരു കാഴ്ച്ചപ്പാട്